നാലാം ക്ലാസ്സിലാണ് എന്റെ ഫസ്റ്റ് ട്രെയിൻ യാത്ര അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഒരു അപ്പർ ഇതിലാണ് കിടന്നത് കിടക്കുകയാണ് ഉണ്ടായത് അത്യാവശ്യം നല്ലൊരു കംഫോർട്ട് ആയിരുന്നു സെക്കൻഡ് ക്ലാസ് യാത്ര ആയിരുന്നു ബാത്റൂമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല എന്ന് വേണം പറയാൻ അത്യാവശ്യം ക്ലീൻ ആയിരുന്നു പിന്നെ എൻജിനുകൾക്കൊക്കെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചക്രങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ ട്രെയിനിന്റെ പാളം ഒക്കെ കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ട് കാരണം ഹ്യൂമൻ വേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം അറപ്പ് തോന്നുന്നുണ്ട് എങ്കിൽപ്പോലും ഒരു എന്താ പറയുക ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞ് യാത്രയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയാണ് ഞാൻ എന്റെ ഫസ്റ്റ് ടൈമിൽ കേറിയതും അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും എന്താ പറയുക കോഴിക്കോടിൽ നിന്ന് ആലപ്പുഴയ്ക്കാണ് പോയത് അടിപൊളി യാത്രയായിരുന്നു ഫുഡും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ട്രെയിനിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒരു ചില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ് ട്രെയിൻ യാത്ര